അതെ ഞാൻ കുറച്ച് പച്ചക്കറിയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് ഐറ്റം എന്തൊക്കെയാണ് ഉള്ളത് കടയിൽ ഈ ഓർഗാനിക്ക് ആയിട്ടുള്ള പച്ചക്കറികളുണ്ടോ അത് എങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് ഓർഗാനിക്കാണൊ അല്ലയോ എന്ന്

ഓക്കെ അതിന് സർട്ടിഫിക്കറ്റൊ കാര്യങ്ങളോ എന്തെങ്കിലുമുണ്ടോ അതിന് വില വ്യത്യാസമുണ്ടോ സാധാരണ ഇതുമായിട്ട് ഓ ഇത് എത്ര ദിവസം കേടാവാതിരിക്കും ഒരാഴ്ച ഇരിക്കുമല്ലെ

ഓക്കെ ഓക്കെ

ഓ ഹോം ഡെലിവറി ഉണ്ട് ഓക്കെ സാമ്പിളിന്റെ കാര്യം കിട്ടാൻ ഞങ്ങൾ അപ്പം പൈസ കാര്യങ്ങൾ ഒന്നുമടക്കേണ്ടല്ലൊ എല്ലാ കൂട്ടവും സാമ്പിൾ ആയിട്ട് കിട്ടുമോ ഈ സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്തേരന്തരും നിങ്ങൾ എനിക്ക് ഒരു കറി വയ്ക്കാനുള്ളത് കിട്ടുമോ അര കിലോ വച്ച് കിട്ടുമല്ലേ ആഹ ഈ ഓർഗാനിക്കും ഇനോർഗാനിക്കുമായിട്ടുള്ള സാധനം രണ്ടുമായിട്ടും തരുമോ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോന്ന് അറിയാനാണ് ഗുണമേന്മ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഡെലിവർ ആവാൻ വേണ്ടി ഡെലിവർ ആവാൻ വേണ്ടി എത്ര ദിവസം സമയം പിടിക്കും നിങ്ങളുടെ നമ്പർ ഒന്ന് തരുമോ അ ഓക്കെ ഞാൻ അങ്ങനെയാണെ വിളിച്ചോളാം കേട്ടൊ ശരി ഓക്കെ ബൈ